ഞാൻ ഗോവയിൽ നിന്ന് വരികയാണ് കേരളം ഒന്ന് കാണാൻ വന്നതാണ് കേരളത്തിലെ മീനിനെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും എല്ലാം അറിയാൻ വേണ്ടി വന്നതാണ് ഏതൊക്കെ തരത്തിലുള്ള മീൻ കിട്ടും

കൊഞ്ച് കൊഞ്ച് കരിമീൻ ഇതെല്ലാം കിട്ടുമോ ഏതാണ് കറി കറിയൊക്കെ കിട്ടുക നല്ല കറികൾ മീനിൻ്റെ

ഇവിടെ ഏറ്റവും ടേസ്റ്റ് ഒക്കെ ഏത് ആയിരിക്കും കല്ലുമ്മക്കായ് കിട്ടുമോ സ്രാവോ ഫിഷ് മോളി എങ്ങനെയൊക്കെയാ ഉണ്ടാക്കുക ഫുഡ് പ്രിപ്പേർ ചെയ്യാനൊക്കെ ഫുഡ് കോർട്ട് ഉണ്ടോ വടക്കൻ സ്റ്റേറ്റ് ഒക്കെ അറിയാമോ കേരളത്തിൻ്റെ ഏത് ഭാഗത്തെ ഫുഡിനാണ് കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾ പറയണ പോലെ ഫുഡ് ഉണ്ടാക്കി തരുമോ ആ രണ്ട് പ്ലേറ്റ് ഫിഷ് മോളി ഉണ്ടാക്കിത്തരണം നിങ്ങളുടെ കുക്കിന്റെ അടുത്ത് പറയണം ആ അത് ഒക്കെ കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം ബാക്കി പിന്നെ പറയാം ഓർഡർ